ഇപ്പോൾ വയനാട് ജില്ലയിലെ ഗതാഗത സംവിധാനം എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാല് കൂടുതലായിട്ടും നമുക്ക് റോഡുകൾ മാത്രമേ ഉള്ളു അല്ലാതെ ഉള്ള ഇപ്പോൾ റെയിൽവേ വിമാനത്താവളം അങ്ങനത്തെ ഒന്നുമില്ല പിന്നെ പൊതുഗതാഗതം മാത്രമേ നമുക്കിപ്പോൾ വയനാട് ജില്ലയിൽ അവൈലബിളായിട്ടുള്ളൂ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഇവിടെ അതായത് വിമാനത്താവളമൊന്നും ഇതുവരെ എത്തിയിട്ടില്ല പിന്നെ റയിൽവേയും ഇതുവരെ ഒന്നും എത്തിയിട്ടില്ല അപ്പോൾ അത് കാരണം നമുക്ക് പൂർണ്ണമായിട്ടും ഹൈവേകള് പിന്നെ ചെറിയ ചെറിയ റോഡുകള് അങ്ങനത്തെ മാർഗങ്ങൾ മാത്രമേ നമുക്ക് ഇപ്പോൾ അവിടെ പോകാനാണെങ്കിലും ഇപ്പോൾ നമുക്ക് പിന്നെ അല്ലാതെ ഉള്ള സംവിധാനം എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാല് നമുക്ക് ഒന്നില്ലെങ്കിൽ കോഴിക്കോട് പോകണം അല്ലെങ്കിൽ കണ്ണൂര് പോകണം ഇല്ലെങ്കിൽ എറണാകുളം അവിടേക്ക് പോയിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് വിമാനത്താവളങ്ങളും കാര്യങ്ങളുമൊക്കെയുള്ളൂ പിന്നെ റെയിൽവേയും ഇതേപോലെ തന്നെയാണ് നമുക്ക് പുറം പുറത്ത് ജില്ലകളിൽ പോയിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആവുകയുള്ളൂ പിന്നേന്ന് പറഞ്ഞ് കഴിഞ്ഞാല് പല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്കിപ്പം എവിടെ എങ്കിലും ദൂരെ യാത്രയ്ക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടുന്ന് ബസിനൊക്കെ കയറിയിട്ട് പോകണം അപ്പോൾ ബസിനൊക്കെ ക്യാഷും കാര്യങ്ങളും ഒക്കെ കൂടുതലാണ് അപ്പോൾ അത് ഭയങ്കര വെല്ലുവിളിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്